ഞാൻ ഗൂഗിൾ മാപ്പ് ഉപ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സൗകര്യമാണ് ഇപ്പോൾ നമ്മള് ഏതെങ്കിലുമൊരു സ്ഥലത്തോട്ട് പോകണ സമയത്ത് നമുക്ക് വഴി അറിയുന്നില്ലാച്ചാ മാപ്പില് നമുക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് അതില് ഡയറക്ഷൻ എങ്ങനെയാ എന്നു വച്ച് നമുക്ക് അങ്ങനെ പോകാം അതുപോലെ അതില് പോകുന്ന വഴിക്ക് എളുപ്പം ഉള്ള വഴികളൊക്കെ അതില് കാണിച്ചു തരും നമുക്ക് ചിലപ്പോൾ ലോങ്ങ് ആയിട്ടുള്ള വഴികള് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളെ അറിയത്തുള്ളൂ ചിലപ്പോൾ ഷോട്ട് കട്ടുകൾ ഒക്കെ ഉണ്ടാകും അതൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷോട്ട് കട്ട് ആയിട്ടുള്ള വഴികളൊക്കെ കാണും അപ്പ നമുക്ക് അതിലൂടെ ഒക്കെ പോകാം ഭയങ്കര ഹെല്പ് ഫുള്ളാണ് അതുപോലെ ഇപ്പം നമുക്ക് ഏതെങ്കിലും ലൊക്കേഷൻ അല്ലെങ്കിൽ ഷോപ്പുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മള് ഗൂഗിളില് നോക്കി വന്നാൽ ആ ഷോപ്പ് അതിൽ രജിസ്റ്റർ ആയിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ ഒക്കെ വിളി നോക്കിയിട്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ കട ഇന്ന് ഷോപ്പ് ഇന്ന് ഓപ്പൺ ആണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതില് നോക്കി വേണേൽ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് എന്ന് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങള് വേണമെന്നുണ്ടെങ്കിൽ അതിലെ നമ്പർ നോക്കി നമുക്ക് അതിൽ വിളിച്ചു ചോദിക്കാം ഇന്ന സാധനം ഉണ്ടോ അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇത് ഭയങ്കര ഹെല്പ് ഫുൾ ആണ് പിന്നെ നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടം എങ്ങനെയാണെന്ന് അറിയാൻ ഒക്കെ പറ്റും ഇപ്പോ അതില് ത്രീഡി പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ത്രീഡിയിൽ ഇട്ട് നമുക്ക് ആ സ്ഥലം ഏതാണ് ഇപ്പോ നമ്മള് ഒരു സ്ഥലത്ത് പോണം ഇപ്പോ അവിടെയുള്ള കടകൾ ഏതെങ്കിലും നോക്കണം എന്ന് വെച്ചാ ഇതിൽ ത്രീഡി ഉണ്ട് അതിലെ ത്രീഡി ഇട്ട് നോക്കിയാ ആ ഷോപ്പ് നമുക്ക് ഫുൾ ആയിട്ട് കാണാം ആ ത്രീഡിയിലുള്ളത് ഫുൾ കാണാൻ പറ്റും ഇപ്പോൾ ഫ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലെ നമ്പർ ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആളുകളുടെ ഫേസും ബ്ലർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എങ്കിലും നമുക്ക് ആ സ്ഥലം മനസ്സിലാക്കിയിട്ട് ഇതാണ് സ്ഥലം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഭയങ്കര ഹെല്പ് ഫുൾ ആണ് നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഓരോ ഇടത്ത് വണ്ടിയിൽ ഒക്കെ പോകുമ്പോ ഓരോരുത്തരോടും നിർത്തി നിർത്തി ചോദിച്ച് ചോദിച്ച് പോകുന്നതിനെ കാട്ടിലും ബെറ്റർ ആണ് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നോക്കി പോകുന്നത് അതുകൊണ്ട് ഇത് ഭയങ്കര പ്രയോജനമാണ് നമുക്ക് ഇപ്പോൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെ പോവാണെങ്കിൽ മാപ്പിട്ട് നമുക്ക് നേരെ പോകാം ഇപ്പോ ആൾ താമസം ഒക്കെ കുറവായ ഏരിയയിൽ കൂടെ പോകുമ്പഴൊക്കെ നമുക്ക് ഡയറക്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം മാപ്പിട്ട് നേരെ പോകാം ഇത് വളരെ യൂസ്ഫുള്ളാണ് വരും കാലത്ത് ഇതിനെക്കുറിച്ച് ഇനിയും നല്ല പഠനങ്ങൾ നടത്തി മാപ്പ് ഗൂഗിൾ മാപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആകും നമുക്ക് കുറച്ചു കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നമുക്ക് പിന്നെ ഗൂഗിൾ മാപ്പില് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അതില് നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ഒക്കെ കിട്ടും പറഞ്ഞാ ചുറ്റു വട്ടത്ത് എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ തോടോ പുഴയോ അതുപോലെ ബിൽഡിങ്ങുകൾ ഒക്കെ നമുക്ക് സാറ്റലൈറ്റ് വ്യൂവിലിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വ്യക്തമായി അത്യാവശ്യം ക്ലിയറോടെ കാണാൻ പറ്റുന്നുണ്ട്